അ ഹലോ ആ കഴിഞ്ഞ ദിവസം ഒരു ഫുഡ്ഡ് ഓഡറ് ചെയ്തായിരുന്നു അതിൻ്റെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതായിരുന്നു

ആ അത് ഭയങ്കര മോശമായിരുന്നല്ലോ ഉപ്പും ഒക്കെ പ്രശ്നമായിരുന്നു ആ കഴിഞ്ഞ ആഴ്ച്ച ഓഡറ് ചെയ്തായിരുന്നു രണ്ടെണ്ണം ആണ് ഓഡറ് ചെയ്തത് അപ്പോൾ അത് രണ്ടും മോശമായിരുന്നു

അന്നേരം ഞങ്ങൾ വിളിച്ചായിരുന്നു അപ്പം നമ്പര് കിട്ടിയില്ലായിരുന്നു ബിസിയൊക്കെ ആയിരുന്നു ആ പിന്നെ ഒരു കാര്യം കൂടെ പറയാനാണ് ഞങ്ങൾ ഒരു അടുത്ത ഒരു മാസത്തേക്ക്ന് ഒരു ഓഡറ് വേണമായിരുന്നു ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് പത്ത് പേർക്ക് വേണ്ടി ഒരു ബിരിയാണിയെ അപ്പോൾ അത് തരാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു അങ്ങനെ കൊടുക്കുന്നുണ്ടോ അത്രയും ആ പത്ത് പേർക്കുള്ള ചിക്കൻ ബിരിയാണി തന്നെ വേണം അപ്പോൾ അതിന് ഒരു പ്രത്യേക നേരത്തെ തന്നെ വിളിക്കുകയോ വല്ലതും വേണോ അതോ അപ്പം കിട്ടൂൽ കുഴപ്പം ആ പത്ത് പേര് തന്നെയാണ് അതിൽ മാറ്റം ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയിച്ചേക്കാം ഏതായാലും പത്ത് പേർക്ക് തന്നെ വേണം ചിക്കൻ ബിരിയാണി വേണം

ആ കുഴപ്പമില്ല ഞങ്ങൾ അത് നല്ല ഫുഡ്ഡായത് കൊണ്ടാണ് എന്നാൽ പിന്നെ ഓഡറ് ചെയ്യാം പിന്നേയും അവടെ നിന്ന് തന്നെ പറയാൻ അപ്പം അതാണ് വിളിച്ച് പറഞ്ഞത് ആ കുഴപ്പം ഇല്ല കുഴപ്പം ഇല്ല അത് ഞാൻ ആയത് കൊണ്ട് രണ്ട് ദിവസം മുമ്പെ അറിയിച്ചേക്കാം എത്ര ഉറപ്പ്ത ന്നെയാണൊ എന്നുള്ള കാര്യം ആ എന്നാൽ ശരി വേറെ ഒന്നുമില്ല ആ അതെ ആവു തിരക്കൊക്കെ ആയി പോയത് കൊണ്ട് പറ്റിയില്ലെന്നെ ആ ഞങ്ങൾ വന്നേക്കാം ആ ഓക്കെ ഓക്കെ